നമുക്കൊരു പത്രത്തിൽ വരുന്നത് പതിനാല് പേജ് അടങ്ങിയിട്ടുള്ളൊരു പേപ്പറാണ് ദിവസവും പത്രമെന്ന് പറയുന്നത് അതിൽ കുട്ടികൾക്ക് അടങ്ങിയ വേണ്ട കാര്യങ്ങൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ളത് കുറച്ചു ക്വസ്റ്റ്യൻസ് മാത്സ് അങ്ങനെയുള്ള ഒരു പേജ് തന്നെ കുട്ടികൾക്കായിട്ട് എല്ലാ പത്രവും ഉൾപ്പെടുത്താറുണ്ട് അതേപോലെ കാർട്ടൂണായിട്ട് കുട്ടികൾക്ക് സമയം സ്പെൻ്റ് ചെയ്യാൻ വേണ്ടി കാർട്ടൂൺ അതേപോലെ കളറിംഗ് ചിത്രത്തിൽ കളർ ചെയ്യാൻ പറ്റിയത് പോലെ പിന്നതേപോലേ സ്പോർട്സ് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സ്പോർട്സിനായിട്ടൊരു പേജ് പിന്നേ കുറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കേ ഉൾപ്പെടുത്താറുണ്ട് അതേപോലെ വാരാന്ത്യത്തിൽ കുട്ടികൾക്കായിട്ടുള്ള ബുക്കുകൾ ബാലഭൂമി അതേപോലെയുള്ള കുറച്ച് ബുക്കുകൾ അതും കുട്ടികൾക്ക് കഥ കൾ വായിക്കാനും അതേപോലെ ചിത്രങ്ങൾ വര വരച്ച് അത് കളർ ചെയ്യാനും പഠിക്കാനൊക്കെ വളരേ ഉപകാരപ്രദമാണ്